ഹലോ ചേട്ടാ ഞാൻ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ഞാന് എനിക്ക് ബോട്ടിൽ കയറാൻ ഭയങ്കര പേടിയാണ് അപ്പം ഒരു ഡേ ട്രിപ്പടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൻ്റെ സേഫ്റ്റ് എനിക്ക് ബോട്ടിൽ കയറാൻ ഭയങ്കര പേടിയാണ് ഏ അ ബോട്ടിൽ കയറാൻ പേടിയാണ് അപ്പോൾ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട് എങ്ങനെ ഈ ആ ബുക്ക് ചെയ്തിട്ടുണ്ട് ആറാം തിയതിയിലേക്ക് അല്ല രണ്ട് ഫ്രണ്ട്സൂണ്ട് അപ്പം അവർക്കും അവമ്മാരിങ്ങനെ ബോട്ടിൽ കയറാൻ പേടി ഉള്ളവന്മാരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് ആ ഫെസിലിറ്റീസുകൾ അതിന് സേഫ്റ്റിയായിട്ട് ആണോ ഇത് ഓടിക്കുന്നത് ഇത് ഹൈ റെസ്ക്യു ഓ ഓ മുങ്ങി പോയി കഴിഞ്ഞാൽ ഞങ്ങളവിടെ കിടക്കുമെന്നാണോ താങ്കൾ പറയുന്നത്

അല്ല സാർ ഞങ്ങളുടെ കൂടെ വരുന്ന അല്ല ഞങ്ങളുടെ കൂടെ വരുന്ന ആർക്കും നീന്താൻ അറിയത്തില്ല അപ്പം അതിനെക്കുറിച്ച് നമുക്ക് സേഫ്റ്റിയായിട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ എത്ര ആയിരിക്കും ഒരൂ ഒരു ഡേ ഫുൾ ആണോ നമുക്ക് ഓക്കെ എങ്കിൽ ഞങ്ങള് ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ അറിയാന് വേണ്ടി വിളിച്ചതാണ് എങ്കിൽ പിന്നെ ഞങ്ങള് ആറാം തിയതി കാണാം ആ വിളിച്ചിട്ട് വരാം ആ ഓക്കെ ശരി താങ്ക്യു